ഇപ്പോൾ കൂടുതലായിട്ടും പിള്ളേര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവര് മൊബൈലിലൂടെ ആണെങ്കിലും ഇപ്പം ടി വി കണ്ട് കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കൂടുതലായിട്ടും കണ്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതലായിട്ടും ഇപ്പോൾ കായിക വിനോദങ്ങളില് ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം മൊബൈലുകളിൽ ഉള്ള ഗെയിംമുകൾ കാര്യങ്ങളൊക്കെയാണ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് കാരണം അവരുടെ കണ്ണിന് കാഴ്ച കുറയുക അവര് ഇപ്പോൾ ആരോടും അങ്ങനെ ഇടപഴകാറാണ്ട് ഇരിക്കുക ഇപ്പം നമ്മളുടെ കുടുംബത്തോട് പോലും അങ്ങനെ സംസാരിക്കാത്ത പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവരുടെ മൈൻഡ് കാര്യങ്ങൾ ഒക്കെ കടന്ന് പോകുന്നത് അപ്പം നല്ല രീതിയിലുള്ള പ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ കായിക വിനോദങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും അവര് നേരിടുന്ന നേരിടുന്നുണ്ട് അപ്പം കളിക്കാൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാര് വിളിക്കുന്നുണ്ടെങ്കിലും ഇവര് ഞാനില്ല നിങ്ങള് പോയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുവാണ് ചെയ്യുന്നത് അപ്പം ഇവര് കൂടുതലായിട്ടും മൊബൈലുകളിലൂടെ പബ്ജി ഫ്രീ ഫയറ് പിന്നെ അങ്ങനത്തെ ഗെയിമുകള് ഇങ്ങനത്തെ ഗെയിമുകള് പല രീതിയിൽ ഉള്ള ഗെയിമുകളും കാര്യങ്ങള് പിന്നെ യുട്യൂബ് ചാനലുകള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവർക്ക് കളിക്കാൻ ഒന്നും ഒരു സമയം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കളിക്കാൻ പോകുമ്പം വിളിക്കൊക്കെ ചെയ്യും പക്ഷെ ആരും അങ്ങനെ പോകാറില്ല അപ്പം നല്ല രീതിയിലുള്ള കുറവ് കാര്യങ്ങൾ ഒക്കെ ഇവർടെ കായിക വിനോദങ്ങളിൽ ഏർപ്പ് ഉണ്ടാവാറുണ്ട്